ആ എനിക്ക് ഒരു വീട് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു

ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ വീടാണ് ഞാൻ നോക്കുന്നത്

ഉള്ള് ഏരിയ നോക്കണം റോഡ് സൗകര്യം ഒക്കെ ഉണ്ടാവുമോ ടൗൺ ഏരിയ പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ ഒക്കെ പോയിട്ട് വരാൻ പറ്റണം

ആ സ്ഥലത്തിന് ഒക്കെ നോക്കാ അപ്പം അവിടെ ഇതിന് റേറ്റ് ഒക്കെ എത്ര വരും

എത്ര സെന്റ് സ്ഥലം ആയിരിക്കും

ആ കയറ്റാം അപ്പം അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെ ആയിരിക്കും ആ നമുക്ക് ഒരു ശല്യം ഉണ്ടാവില്ലല്ലൊ അല്ലെ നമുക്ക് റെന്റ് കുറച്ച് കമ്മിയാക്കാൻ പറ്റുമോ

ആ ഓക്കെ നോക്കാം